തീർത്ത് ഞാൻ കരുതുന്നുണ്ട് കാരണം ഈ സമയങ്ങൾ കൂടുതലായിട്ടും നല്ല പോലെ കഴിഞ്ഞ പിള്ളേരാണ് ഇപ്പം ഞാൻ പറഞ്ഞതു പോലെ തന്നെ നേഴ്സിംഗ് അങ്ങനെയുള്ള ഫീൽഡുകളിലൊക്കെ വിദ്യാർത്ഥികൾ കൂടുതൽ പോകാൻ എന്നൊരു സമയമാണ് കാരണം ആ ഒരു ഫീൽഡിൽ ജോബ് ഓഫർ കൂടുതലാണ് പക്ഷെ ഈ അവസ്ഥയിൽ അങ്ങനെ എല്ലാവരും അങ്ങോ അങ്ങനെയുള്ള നഴ്സിംഗോ മെഡിക്കൽ ഫീൽഡ് അല്ലേ എഞ്ചിനീയറിംഗ് അങ്ങനെയുള്ള കോഴ്സുകളിലേക്ക് പോകുമ്പം ഇവിടെയുള്ള ആശാരിപ്പണി പ്ലംബിംഗ് തുടങ്ങിയ തൊഴിലിന് ആൾക്കാർ ഇല്ലാതെ വരും അങ്ങനെ അത് അറിയാത്തവന് വേണ്ടി അങ്ങനെ ഒരു സ്ഥിതി വരാതിരിക്കണമെങ്കിൽ ഇതുപോലെയുള്ള പ്ലംബിംഗ് ആശാരിപ്പണി തുടങ്ങിയവ സ്കൂളുകളിൽ പഠിപ്പിക്കുകയാണെങ്കിൽ അടിപൊളിയാണ് ഇപ്പം പോളി പോളിടെക്നിക് കോളേജുകളുടെ ഒക്കെ വർഷോപ്പുകളിൽ ഈ ആശാരി പണിയുടെ കുറച്ചു ഭാഗങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ ഒരു സബ് ആയിട്ട് എടുത്ത് പഠിക്കണമെന്ന് ആളുകൾക്ക് അങ്ങനെ പഠിപ്പിക്കാൻ വളരെ യൂസ്ഫുൾ ആയിരിക്കും